ഹലോ

ആ എന്ത്പ്പാ ഉണ്ടല്ലോ ആ ആ ആ ആ ആ

ആ ബനാറസ് സാരി ഉണ്ട് പക്ഷേ ഇത് കുറച്ച് റേറ്റ് ഉണ്ടാവും നിങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ആക്കുന്നതല്ലേ ആ ആ ആ ആ ആ അപ്പം അത് നിങ്ങൾ വരെണ്ടി വരും ഷോപ്പിലേക്ക് നോക്കാന്

ആ ഫോട്ടോസുണ്ടാവും നിങ്ങളെ വാട്ട്സ്പ്പ് നമ്പറ് ഇതന്നെ നിങ്ങളെ വാട്ട്സ്പ്പ് നമ്പറാ അപ്പോൾ ഞാൻ ഉള്ളത് ഈലേക്ക് അയക്കാൻ പറയാ ആ ആ വി വിത്ത് ബ്ലൗസ് തന്നെ ആ വിത്ത് ബ്ലൗസ് തന്നെ ആ അഞ്ചര മീറ്റർ ഉണ്ടാവും

കളറ് പോവൂല ഡാർക്ക് കളറും ഉണ്ട് പിന്നെ ലൈറ്റ് കളറും ഉണ്ട് നിങ്ങൾക്ക് നോക്കീറ്റ് എടുക്കാം ഞാൻ സെൻഡാക്കാ ഫോട്ടോ എല്ലാം ആ അപ്പോൾ ഇഷ്ടപ്പെട്ട വരാലോ നിങ്ങൾക്ക്

ആ അതെ അത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയക്കാം അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഇത് വെരെ നമ്മളെ പ്രൊഡക്റ്റിന് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ആ അപ്പം നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ അയച്ചിറ്റാമ്പം നോക്കീറ്റ് നിങ്ങൾക്ക് വരാലോ അപ്പോൾ ബൾക്കാവുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടില് കിട്ടും നിങ്ങക്ക് കിട്ടും കിട്ടും

ഒരു സാരിക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് ഒരു ത്രീ തൗസൻഡുണ്ട് ആ ത്രീ തൗസൻഡ് സ്റ്റാ ഇത്രയും അങ്ങനെ കംപ്ലയിൻറ്റ് ഒന്നും വരലില്ല അല്ലെങ്കിൽ നോക്കീറ്റ് ഞാൻ അയക്കാ നിങ്ങൾ നോക്കീറ്റ് വന്നാൽ മതി നോക്കിയാൽ മതി അപ്പോൾ അറിയല്ലോ നിങ്ങക്ക് ആ ആ ആ അതെ ആ

ആ ആ ആ

ആ ആ ഇല്ലപ്പാ ഞാൻ നിങ്ങക്ക് അയക്കാം അപ്പം നിങ്ങൾ നോക്ക് ബന്നിറ്റ് നോക്കിയാൽ മതി ആ ആ ആ ആ അതെന്നെ അതന്നെ

എല്ലാ ടൈപ്പ് സാരിയും ഉണ്ട്

ആ ഞാൻ ഡ്രസ്സ് വാട്ട്സ്ആപ്പ് ചെയ്യാം ആ ശരി ശരി ആ ശരി എന്നാൽ ശരി ആ ശരി താങ്ക് യൂ